ഹലോ ജ്യൂല്ലറി ഷോപ്പ് അല്ലേ ആ ഞാൻ ഞാൻ ഈ കാർത്തിന്നാരുന്നു വിളിക്കുന്നത് എനിക്കൊര് കൊലുസ്സ് വാങ്ങി മാറി എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ എന്ന് വന്ന് കഴിഞ്ഞാലതിന് പുതിയ മോഡലുകൾ ഒക്കെ കാണുവായിരിക്കുവല്ലോ ധാരാളവായിട്ട് കൊലുസ്സ് ഒത്തിരി പഴയ ഒത്തിരി പഴയത് ആയത് കൊണ്ടല്ല അത് ചുമ്മാ ഒന്ന് വലിഞ്ഞ് പൊട്ടിപ്പോയി അപ്പം അതൊന്ന് മാറ്റി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിനെത്ര മോഡൽ വേണം മ് അപ്പം പിന്നേ നമ്മുടെ അതിൻ്റെ പണിക്കൂലി കാര്യങ്ങളോ ഒക്കെയൊന്ന് കൃത്യമായിട്ട് ഒന്ന് അറിഞ്ഞിട്ട് വേണം വരാൻ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ മ് തുക കൂടുതൽ ആയി എന്ന് പറഞ്ഞ് പിന്മാറാൻ പറ്റുകയില്ലല്ലോ അപ്പം പിന്നെ ഏറെക്കുറെ ഏറെക്കുറെ അതിന് എന്ത് വില ആകും ഒരൂ ഒന്നര പവൻ തൂക്കവാണ് ഉദ്ദേശിക്കുന്നത് ആ അപ്പോൾ അതിന് പണിക്കൂലി സഹിതം എന്ത് വില ആകും നമ്മൾ പഴയത് അങ്ങു തരുമ്പോൾ എത്ര രൂപായ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റും അതൊക്കെ ആ വക കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തരാമോ

ആ എന്നാൽ നാളെ വരാം മ് അത് സ്ഥലത്ത് കാണുവല്ലോ പഴയത് വേറെ ഇപ്പം മാറാൻ ഉദ്ദേശിക്കുന്നില്ല ഇതൊന്ന് മാറി എടുക്കാം എന്നുള്ളതേ ഉള്ളു ഉം ആ ആ അ ആ എന്നാൽ അങ്ങനെയാണെങ്കിൽ മോൻ്റെ ഒരു ചെറിയ കൊലുസ്സും കൂടി എ ഒര് ചെറിയ കൊലുസ്സും കൂടി ഇരിക്കുന്നുണ്ട് അത് ഈ തളം തളം മോഡലുള്ളതാണ് ആൺപിള്ളേരുടെ ആയിരുന്നു അപ്പം അതൊന്ന് ഉം അ ആ അപ്പം എന്നാൽ അതുംകൂടെ ഞാൻ കൊണ്ട് വരാം നാളെ വരുമ്പോൾ അപ്പം അതുംകൂടെ നമുക്ക് ഇനി ഇപ്പം കൊലുസായിട്ടോ തളയായിട്ടോ വേണ്ട

ആയിക്കോട്ടെ എന്നാൽ നാളെ വരാം ആ എന്നാൽ ഏറ്റവും നല്ല മോഡലുകൾ ഒന്ന് രണ്ടെണ്ണം സെന്റ് ചെയ്തേരേ ഞാൻ നോക്കട്ടെ ചേട്ടനേയും കൂടെ ഒന്ന് കാണിച്ച് കൊടുക്കാം എന്നിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ നാളെ വരാം ഓക്കെ അതെ വാട്സ്ആപ്പ് ഉണ്ട് ഈ നമ്പർ തന്നെ ഇത് മതി ഇത് തന്നെയാണ് നമ്പർ വാട്സ്ആപ്പ് നമ്പർ ഇത് തന്നെ മ് ആയിക്കോട്ടെ മ്ഹൂം അപ്പം ഞങ്ങൾ കണ്ടിട്ട് ഒന്ന് സെലക്ട് ചെയ്തിട്ട് വരാം ഉം ആ ആ ആയിക്കോട്ടെ ഓർണമെന്റ്സ് അധികം ആയിട്ടൊന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതൊര് തള മാറിയിട്ട് ഒരു രണ്ട് മോതിരവോ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളു മ് ആ അപ്പം എന്നാൽ നാളെ കാണാം ഓക്കെ